ഹലോ ഇത് ടെക് സപ്പോർട്ട് അല്ലെ ഇന്നു രാവിലെ എൻ്റെ ഫോണിലേക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഏക്സസായിട്ടുള്ളതായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതെ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് ഇത്ര സേഫായിട്ടുള്ള അക്കൗണ്ട് ഏക്സെസ്സെയ്യുന്നതറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പാസ്സ്വേർഡൊക്കെ ഒന്നു ചേയ്ഞ്ച് ചെയ്യുകയും വേണമായിരുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിസ്ഥലത്താണുള്ളത് അനേ അപ്പം എൻ്റെ അക്കൗണ്ട് സുരക്ഷയേ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട് അപ്പോൾ എൻ്റെ പാസ്സ്വേർഡ് മാറ്റേണ്ടതുണ്ട് ഡിജി ലോക്കറിൻ്റെ എൻ്റെ പാസ്സ്വേർഡ് മാറ്റുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എൻ്റെ ഫോണിലേക്ക് ഒ ട്ടി പി വരുമോ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇനി അടുത്ത ആ ഡിജി ലോക്കർ അക്കൗണ്ട് മുൻപോട്ടു കൊണ്ടു പോകേണ്ടത് അതെ ഇല്ല എൻ്റെ അക്കൗണ്ട് എന്നു പറഞ്ഞാൽ സേഫ് ആണ് എൻ്റെ പാസ്സ്വേർഡ് എന്നു പറയുമ്പോഴത്തേക്ക് ശ്രീജ എന്നാണ് ഡിജി ലോക്കറിൻ്റെ പാസ്സ്വേർഡ് മാറ്റേണ്ടതുണ്ട് എൻ്റെ പാസ്സ്വേർഡ് ഞാൻ ആർക്കും പറഞ്ഞുകൊടുക്കാറില്ല ഡിജി ലോക്കർ അക്കൗണ്ട് ആക്സസ്സായെന്നു പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ള രാവിലെ അതു നിങ്ങൾ എന്തെങ്കിലും സേഫായിട്ട് നമുക്ക് ചെയ്തു തന്നാലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്ന് എനിക്ക് പറയേണ്ടിവരും നിങ്ങൾക്കു ചെക്ക് ചെയ്യാൻ പറ്റുമോ എൻ്റെ പാസ്സ്വേർഡ് ആക്സസ് ആയിട്ടൊണ്ടോ ഇല്ലയോയെന്ന് അക്കൗണ്ട് ഇല്ല പുതിയ പാസ്സ്വേർഡ് മാറ്റാൻ നിങ്ങൾക്കു പറ്റുമോ അതാ ഞാൻ ഇനി വന്നു പറഞ്ഞു തന്നാൽ പാസ്സ്വേർഡ് മാറ്റാൻ പറ്റു എൻ്റെ ഒ ട്ടി പി നമ്പർ വേണോ ആ അസസെയ് ആക്സസ് ചെയ്ത ഡിജി ലോക്കർ ഡിലിറ്റ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടേ അതെ ആ കൊണ്ടുവരാം ഞാ വരുമ്പോഴത്തേക്ക് പാസ്സ്വേർഡ് എത്രയും വേഗം മാറ്റണം ആ പാസ്സ്വേർഡ് മാറ്റിയശേഷം മറ്റെല്ലാ ഉപകരണങ്ങളും ലോഗ് ഔട്ട് ചെയ്യണം

ഇല്ല ടെക് ടെക് സപ്പോർട്ടിനെ വിളിക്കാനാണ് എനിക്കാദ്യം തോന്നിയത് അങ്ങനെയാണ് ടെക് സപ്പോർട്ടിനെ വിളിച്ച് തിരക്കിയ അക്കൗണ്ട് സുരക്ഷയാണെന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കു തരാൻ പറ്റുന്നത് ഞാൻ ആർക്കും എൻ്റെ പാസ്സ്വേർഡ് പറഞ്ഞു കൊടുത്തിട്ടില്ല അത് എന്ന് നിങ്ങൾ നല്ല സേഫെന്നും പറഞ്ഞാണ് നമ്മളേന്ന് അക്കൗണ്ട് എടുത്തത് ഇത്ര സെയ്ഫ് ഇല്ലാത്തിടുത്തു നമ്മൾ എന്തുദ്ദേശത്തിലാണ് നിങ്ങളേൽ അക്കൗണ്ട് തുടരുന്നത്